കോവിഡ് പത്തൊൻപത് ശരിക്കും ഇവിടെ ഞങ്ങളെയും ഒപ്പം എല്ലാവരെയും ബാധിച്ചത് പോലെ തന്നെ ഇവിടെ ശരിക്കും ബാധിച്ച് ഞങ്ങൾക്ക് ശരിക്കും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം ഓരോ സോണും ഒരേ ഓരോ വഴികളും വരെ അടച്ച് യ യ വിനോദ സഞ്ചാരത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ അതുപോലെ എല്ലാ വഴികളും എല്ലാ സ്ഥാപനങ്ങളും നമുക്ക് പോ പോകാൻ ഒക്കാത്ത വഴി വരെ ഫുൾ ആയിട്ട് നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ ഫുളള് ആയിട്ട് പിള്ളേർ വരെ മാസ്ക് കെട്ടാതെ നമുക്ക് പോ പുറത്ത് പോകാതിരിക്കാൻ ഒക്കത്തില്ല അങ്ങനെ ഓ ശരിക്കും ബുദ്ധിമുട്ടുകയും ഓ പ എന്തരാണ് ആ അസുഖം പിടിച്ച പല ആൾക്കാരും ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനെ മ മ മരണങ്ങൾ സംഭവിക്കുകയും ഓരോ ബുദ്ധിമുട്ട് അനുഭവിച്ച ഓരോ ആൾക്കാരും ജോലി ഇല്ലാതെയും ഒക്കെ വിഷമിച്ച് ഒരു മനുഷ്യരും അങ്ങോട്ടോ ഇങ്ങോട്ടോ ജോലി കൊടുക്കുകയോ ജോലിക്ക് പോകാനോ ഒന്നും ഒക്കാത്ത ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴത്തേക്ക് എന്തായാലും ശരിക്ക് നമ്മളത് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി അതായത് നല്ല ഇതു പോലെ ആയിരുന്നു ഈ മറ്റെ പേമാ ഇത് മറ്റേ പേ മാ ഇത് വെള്ളപ്പൊക്കമുണ്ടാകുന്ന പോലെയൊക്കെ നമുക്ക് ഈ ഒരു പിന്നെ പ പകർച്ച വ്യാധി പകർച്ച വ്യാധിയുമായിരുന്നല്ലോ അപ്പോൾ ആ അത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടുമിങ്ങോട്ടും കാണാൻ മേലാത്ത സ്റ്റേജും ഒരു ആൾക്കാരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയായിരുന്നു അത് ആരുടെ അടുക്കെ സംസാരിക്കാം അങ്ങോട്ടോ ഇങ്ങോട്ടോ സംസാരിക്കാനോ അല്ലേ കാണാനോ ഒന്നും ഒക്കാത്ത വിനോദ സഞ്ചാരം എന്നു പറഞ്ഞാൽ ശരിക്കും ആ സംസ്ഥാനത്തെ ഓരോ സംസ്ഥാനത്തേയും ആ വിനോദസഞ്ചാരത്തിനെ ശരിക്കും ബാധിച്ചു ആ ബാധിച്ചതിൽ ഭയങ്കര നഷ്ടങ്ങളും പ്രയാസം ഓരോ പ്രയാസങ്ങളും ഓരോ പ്രശ്നങ്ങളും ഉണ്ടായി നല്ല രീതിയിൽ സ ഓ പിന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഈ കോവിഡ് പത്തൊൻപത് അതിൽക്കൂടി തന്നെ ആൾക്കാർ ഒരു പിന്നെ ഇങ്ങനെ ഏതോ രീതിയിൽ ഇത് ഒരു ചുരുക്കി പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോലും പോകാൻ മേലാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു മഹാ മഹാമാരി ഈ കോവിഡ് എന്തായാലും അത് അങ്ങനെ ഇത്രയും വർഷം രണ്ട് വർഷത്തോളം ഒരു രണ്ട് വർഷത്തിന് മുകളിൽ തന്നെ എന്നു പറയാം അങ്ങനെ ആനുഭവിച്ച് അത് ഈ ഒരു പകർച്ച വ്യാധിയുടെ അല്ലെങ്കിൽ ഒരു ഈ കോവിഡിൻ്റെ എഫക്റ്റ് അതിൻ്റെ ഒരു ഒ ബുദ്ധിമുട്ട് എന്താണെന്ന് ആൾക്കാർ ഇപ്പോൾ കുട്ടികൾ വരെ പഠിച്ച ഒരു ഒരു അനുഭവിച്ചതും അവർ മനസ്സിലാക്കിയതും പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യമായിരുന്നു ആ കോവിഡ് പത്തൊൻപത് അതിൽ അതിലിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല ആൾക്കാരും പല വഴികളും നോക്കി നോക്കിയിട്ടുണ്ട് എന്നിട്ട് ആൾക്കാർ പുറം ലോകം കാണാതെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു പോകുകയായിരുന്നു അങ്ങനെ ശരിക്കും ബാധിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും ബാധിച്ചതാണ് ഓ നമ്മുടെ ഈ ഓരോ ഓരോ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽത്തെ വഴി തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ് ആ അടച്ച ഒരു ഒരു വ വഴിക്ക് ബൈക്ക് സ്കൂട്ടറെ പോലും പോകാൻ മേലാത്ത സ്റ്റേജുകളിൽ അങ്ങോട്ട് നമുക്ക് കടക്കാൻ ഒക്കത്തില്ല ടൗണിലേക്ക് പോകാൻ ഒക്കത്തില്ല അങ്ങനെ വന്ന് അങ്ങനെ ആണ് ഈ മിക്ക എത്രയോ വഴികൾ അടച്ച വഴികളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിരിക്കുന്നു അങ്ങനെ ആ അങ്ങോട്ടാണ് ആ ഒരു വഴിക്കോട്ട് പോകാനൊക്കത്തില്ല ആൾക്കാരെ ഒരാളെ പേടിച്ച് പേടിച്ചാണ് നമ്മൾ പോകേണ്ടിയത് കാരണോച്ചാൽ അവർ നമ്മളെ കാണുവോ അല്ലെങ്കിൽ നമ്മൾ അവരെ കാണുവോ അവർക്ക് അവരുടെ രോഗം നമുക്ക് പിടിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ശരിക്കും നമുക്ക് അനുഭവപ്പെട്ട് പെടുകയും ചെയ്തു എന്തായാലും ഒരു നല്ല രീതിയിൽ നേരെ ഒരു രീതിയിൽ നമുക്ക് ടൗണിലേയ്ക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒക്കത്തില്ല പോയി ഇവരെ ഹോ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ നമ്മൾ നമുക്ക് ഒരു ഓ ആരോഗ്യ കേന്ദ്രത്തിലാണ് നമ്മൾ പോകേണ്ടത് പക്ഷേ അവിടെ പോലും നമ്മൾ പോകുമ്പളത്തേക്ക് ആ പേടിച്ച് ഓ ഓ പേടിച്ചാണ് പോകുന്നത് ഇപ്പം പൈസ കൊണ്ടോ പൈസപരമായിട്ടായാലും ശരിക്ക് ആൾക്കാർ ബുദ്ധിമുട്ടി സാധാരണ ജോലിക്കാർക്ക് ആണേലും ഒക്കെ ബുദ്ധിമുട്ടി ഈ പൈ ചിലരൊക്കെ പൈസ ഉള്ള ആൾക്കാർക്ക് ചിലവാക്കാനുള്ള ചാൻസ് വഴിയില്ല അങ്ങനെ വരെ ബുദ്ധിമുട്ടിയാണ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പൈസ പരമായിട്ട് ശരിക്കും ശരിക്കും ബുദ്ധിമുട്ടി ആൾക്കാർ ഇന്ന ഒരു ആഹാരം പോലും കഴിക്കുന്നത് പേടിച്ചാണ് ഇന്ന ആഹാരം കഴിക്കുന്ന ആ രീതിയിൽ ഒക്കെ ബുദ്ധിമുട്ടി ആ എന്തായാലും അത് ആ എങ്ങനെയോ അത് പിന്നെ കുറേച്ചെ കുറേച്ചെ ആയാലും ശരിക്കും നാശം വിതച്ചിട്ട് അത് അത് മാറി വരുമായിരുന്നു മാറി വന്നു പക്ഷേ ഇപ്പോഴാണ് ഇപ്പോഴാണ് അതുപോലെ തന്നെ അത് രണ്ടാമത് തിരിച്ച് വരുന്നൂന്നുള്ള ഒരു ഓ ഓ രീതിയിലാണ് വന്നിരിക്കുന്നത് അത് എന്തിൻ്റെ എങ്ങനെ ആണെന്നോ ഏത് രീതിയിലാണെന്നോ അതിനെപ്പറ്റി പഠിച്ചോണ്ടിരിക്കുന്നു അത് പിന്നെ അതിനുള്ള പ്രതിവിധിയുണ്ടാകുന്നു അങ്ങനെ ഉള്ളു അത് ഏതായാലും കുഴപ്പമില്ല അത് അങ്ങനെ അത് ശരിക്കും ബുദ്ധിമുട്ടിച്ചു ജനങ്ങളെ അങ്ങനാണ്